ഇത് കേരളത്തിലെ കേരളത്തിലെ ഇപ്പം ഫിഷ് ഉപയോഗിച്ചുള്ള ഫുഡ് കിട്ടുന്നത് എവിടെയാണ് ഉള്ളതിപ്പോൾ വയനാട്ടിൽ കല്പറ്റയിൽ നിന്നാണ് വിളിക്കുന്നത്

ആലപ്പുഴയിൽ നിന്ന് അ

അപ്പോൾ ഈ ചെമ്പല്ലീ ചെമ്പല്ലീ നമുക്ക് നമുക്ക് കിട്ടുകയില്ലേ

ഓക്കേ